സമ വ്യാജവാർത്ത എന്ന് പറയുമ്പം നമ്മളിപ്പം നമ്മുടെ അടുത്ത് തന്നെ നടക്കുന്ന ഒരു സംഭവമാണ് അർജുനൻ്റെ ലോറിയിൽ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അത് അയ്യോ ദാണ്ട വരുന്നു എന്നിട്ട് ചാൻ ചാനലുകാർ പറയുന്നില്ലെങ്കിലും പിന്നെ വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട് അവിടെ അവർ അങ്ങനെ വരുന്നു അയാളുടെ ലോറിയുടെ ഡിക്കിയിൽ കള്ളപ്പണം ഉണ്ട് അയാളെ ദാണ്ട ഇപ്പം ചില വാർത്തകൾ ചാനലുകാർ പറയുന്നു അയാളെ അവിടെ കണ്ടു ഇവിടെ കണ്ടു പക്ഷേ ഇതൊന്നും നമ്മൾ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇതിനെ ഒക്കെ പിന്നെ തെറ്റായ രീതിയിലാണ് കാണുന്നത് കാരണം എല്ലാ വാർത്തകളും എല്ലാ എല്ലാവർക്കും മുന്നേ നിൽക്കണമെന്നുള്ള വിചാരത്തിലാണ് വാർത്തകൾ പോകുന്നത് പക്ഷേ ഇതിനകത്ത് ശരിയായ വാർത്തകൾ ചുരുക്കമാണ് ചിലർ അവിടെ കണ്ടു ഇവിടെ കണ്ടു അതുപോലെ പല വാർത്തകളും ചില വാർത്തകളിലൊക്കെ കാണിക്കുന്ന വാർത്തകളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വാർത്ത കാണുമ്പം സഭകളെ കുറ്റം പറയും അതല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയും ഇതൊക്കെ ചിലതും വ്യാജ വാർത്തകളാണ് നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് മനസിലാകും ഇത് വർത്തകൾ അവരുടെ ചാനലുകാർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പദ്ധതിയാണ് അല്ലാതെ ഇത് നല്ല പിന്നെ മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനല്ല അവർ തീരുമാനിക്കുന്നത് വാർത്തകൾ പലതിനും നമ്മൾ കേട്ടിട്ടുണ്ട് വാർത്തകൾ ഈ അർജുനൻ്റെ തന്നെ ഇപ്പോഴത്തെ സംഭവത്തിൽ തന്നെ പല ച് ചാനലുകാരും പല രീതി നമ്മൾ ചാനൽ മാറ്റി മാറ്റി കൊടുക്കും വാർത്തകൾ കാണും അതുപോലെ പത്രത്തിൽ വരുന്നത് ഇതെല്ലാം പല രീതിയിലും കള്ളത്തരം പകുതിയും കള്ളത്തരമായിരിക്കും നമ്മുടെ നമ്മൾ വാർത്തകൾ വായിക്കുന്നു നമ്മൾ വായിക്കുമ്പോഴും അത് ഇപ്പം അതുപോലെ തന്നെ ചില മരണങ്ങൾ ചില പിള്ളേർ മരിച്ചു കഴിയുമ്പോൾ അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ അതിനകത്തൊക്കെ ഒരു നൂറ് ശതമാനം ശരിയാവണമെന്നില്ല അതിനകത്ത് പല കാര്യങ്ങളും തെറ്റായിരിക്കാം ചിലർ ആക്സിഡൻറിൽ മരിക്കാം ചിലർ പിന്നെ ചിലർ പറയും അത് അങ്ങനെ പോയി ഇങ്ങനെ പോയി അതൊക്കെ ഒരുപാട് തെറ്റായ അത് മനുഷ്യനെ മനുഷ്യനെ ഒരുപാട് ബാധിക്കും നമ്മുടെ സമൂഹത്തെ അത് ബാധിക്കും വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് നല്ലതാണ് എന്നൊന്ന് ഒരു അഭിപ്രായവും എനിക്കില്ല ചില ആ വാർത്തകളൊക്കെ നല്ലതായിരിക്കാം ചിലരൊക്കെ അതിന് സമൂഹത്തിൽ നല്ല മുൻഗണനയും കിട്ടും പക്ഷേ എല്ലാ വാർത്താ ചാനലുകാരും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ